എനിക്ക് നക്ഷത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ് കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ നമുക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതലായിട്ടും വേനൽ സമയങ്ങളിലൊക്കെയാണ് നക്ഷത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണുകയുള്ളൂ കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ സമയങ്ങളില് മാത്രമാണ് നമ്മുടെ ആകാശം നല്ല രീതിയില് മേഘാവൃതമായിട്ടുള്ള ആയിട്ട് കാണാൻ പറ്റൂകയുള്ളൂ നമുക്ക് അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു മഴ സീസണൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല കാരണമെന്ന് വെച്ചാൽ മഴയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ആകാശത്തോട്ട് നോക്കാനും കൂടെ പറ്റില്ല അപ്പോൾ നല്ല രീതിയിലുള്ള മേഘവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫുള്ള് അടഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പായിരിക്കും ആ സമയങ്ങളില് അപ്പോൾ എനിക്ക് ആകാശത്ത് പല രീതിയിലുള്ള നക്ഷത്രങ്ങളൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ വേട്ടാളൻ വേട്ടക്കാരനെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നക്ഷത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നല്ല രീതിയിലുള്ള നക്ഷത്രങ്ങളൊക്കെയാണ് ഇതൊക്കെ ഞാൻ അറിഞ്ഞതെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ പണ്ടുള്ള പല രീതിയിലുള്ള കഥകളും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബാലരമയും കാര്യങ്ങളൊക്കെ വായിക്കുന്ന പോലെ തന്നെ പല രീതിയിലുള്ള കഥകള് കാര്യങ്ങളൊക്കെ വായിച്ചിട്ടാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് കൂടുതലായിട്ടും അറിഞ്ഞത് ഓരോ ഓരോ ആൾക്കാര് പറയുന്ന കഥയും കാര്യങ്ങളും കേട്ടിട്ടൊക്കെയാണ് കൂടുതലായിട്ടും ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതെന്ന് വേണമെങ്കിൽ പറയാം